ഹലോ ഹലോ ഇവിടെ ടൂ വീലർ റെൻറ്റൽ കമ്പനി അല്ലേ ഞാനിവിടെ കോയമ്പത്തൂരിൽ നിന്നാണേ വിളിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് അതായത് നമ്മളൊരു ടെക്സ്റ്റൈൽസ് അതായത് കോഴിക്കോട് പിന്നെ അതിൻ്റെ കുറച്ച് അതായത് എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ നമുക്ക് വണ്ടി കാര്യങ്ങൾ ഒന്നുമില്ല നമ്മൾ ട്രെയിനിലാണ് വരുന്നത് ഇവിടുന്ന് അപ്പോൾ നമ്മളിപ്പോൾ ടൂ ടു വീലറിൽ പോവാനാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്

ആ ആ ആ ആണ് ആണല്ലേ ആ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ചാർജ് ആണോ പറയുന്നത് എത്ര എത്ര അവർ അങ്ങനെ ആണല്ലേ ഓക്കെ അപ്പോൾ എണ്ണ കാര്യങ്ങളൊക്കെ

ആണല്ലേ

ആ ആ ഓക്കേ ഓക്കേ അപ്പം എന്നാൽ നമ്മൾ അത്രയേ ഉള്ളൂ പോവാം അല്ലേ ആ ആ കൊഴ ആണല്ലേ ആ അപ്പോൾ പിന്നെ നമുക്ക് അതായത് നമ്മളിപ്പോൾ ടെൻ ഡേയ്സിന് നമുക്ക് റെൻ്റിനെടുക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ട് തരാണ്ട് തന്നെ ആണല്ലേ ഓക്കേ ഓക്കേ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പതിനഞ്ചാം തീയ്യതി ആണവിടെ എത്തുക അപ്പോൾ ഞാൻ നിങ്ങളുമയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ നമ്മൾ ഓക്കെ താങ്ക് യൂ